മന് മഞ്ചേരിയില് മലപ്പുറം ആസ്ഥനമായിട്ടൊര് സ്പോര്ട്സ് കൗണ്സില് പ്രവര്ത്തിക്കുന്നുണ്ട് അതില് ഫുട്ബോള് ക്രിക്കറ്റ് ടെന്നീസ് വോളീബോള് ഹോക്കി തുടങ്ങിയ എല്ലാ കായിക വിനോദങ്ങളുടേയും പരിശീലനം നടക്കുന്നുണ്ട് ഇപ്പം പല ഏജില് അണ്ടര് പാ അണ്ടര് സെവൻറ്റീന് അണ്ടര് ട്വൊൻറ്റി അണ്ടാ അണ്ടര് അണ്ടര് ട്വൻറ്റി ഫോര് എല്ലാ ഏജിലും പെട്ടവര്ക്കും പ്രത്യേകം പ്രത്യേകം കോച്ചിങ് പരിശീലനം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്റെ ഏട്ടന്റെ മകന് ഫുട്ബോളിലാണ് താല്പര്യം അപ്പം അതിന് വേണ്ടി അവിടെ സമീപിച്ചിരുന്നു മ മഞ്ചേരി സമീപിച്ചിരുന്നു മഞ്ചേരിയിൽ മഞ്ചേരിയിൽ ആസ്ഥ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ ആ സ്പോര്ട്സ് കൗണ്സില് പ്രസിഡന്റ് യൂഷറഫലി നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹത്തിൻറ്റേ മേല്നോട്ടത്തില് വളരെ നല്ല രീതിയിൽ സ്പോര്ട്സ് കൗണ്സില് കേന്ദ്രം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം മികച്ച ഒരു സ്പോര്ട്സ് കേ നല്ല ഒരു കേന്ദ്രമാണ് മഞ്ചേരിയിലേത് അവിടെ സമീപിക്കാന് എല്ലാര്ക്കും സമീപിച്ചാല് എന്തുവിധ സംശയങ്ങൾക്കൊക്കെ സമീപിക്കാന് പറ്റുന്ന ഒരു കേന്ദ്രമാണ് മഞ്ചേരി